ഹലോ ആ ഇത് ഞാനിവിടെ ഒരു മാഷാണ് ഇവിടെ കണ്ണൂർ ഇ ട്ടീ സ്കൂളില് പഠിപ്പിക്കുന്ന ഒരു മാഷാണ് ഹൈസ്കൂള് പഠിപ്പിക്കുന്ന മാഷാണ് അപ്പം നമുക്ക് ഒരു യൂണിഫോർം ഒരു ആൻപത് കുട്ടികൾക്കുള്ള യൂണിഫോർം തയ്ക്കാൻ എന്താവും

അത് വളരെ കൂടുതൽ ആയിപോയല്ലൊ

ആൺകുട്ടിയാണ് ഉം

കുട്ടികൾ ഓ തുണി തയിച്ച് ഇപ്പോൾ എന്താ മേയ് മേയ് ജൂണിൽ ജൂണ് ജൂണ് രണ്ട് ആ മേയ് അല്ല

മേയ് ഒരു ഇരുപത്തഞ്ചിന് കിട്ടിയാൽ മതി മുൻപാണേൽ സ്കൂള് തുറക്കുന്നത് ആണല്ലോ ആ അതെ ആ ആരുണ്ടെന്നാണ് പറഞ്ഞത് അത് നിങ്ങളുടെ തയ്യൽ ഷോപ്പിന്റെ പേരെന്താണ് എവിടെയാണ് സംഭവം എവിടെയാണ് നിങ്ങളുടെ സ്ഥലം ഓ പേട്ട ജങ്ഷൻ ഇത് എവിടെയാണ് സ്ഥലം ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാൽ പിന്നെ ഇവിടെ അടുത്താണല്ലോ അപ്പം പിന്നെ ആ ആ ആ ആ ഉം ഉം ആ ആ ആ